തൊണ്ടയടപ്പ് അല്ലെങ്കിൽ വാചികമായ ക്ഷീണം എങ്ങനെ നേരിട്ടു എന്നു ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക നമുക്ക് തൊണ്ടയടപ്പ് അതുപോലെത്തന്നെ ക്ഷീണമൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മൾ ആകെ കുടുങ്ങിപ്പോകുന്നൊരു അവസ്ഥയിലേക്ക് ആയിരിക്കും പോന്നിട്ടുണ്ടാകുക അപ്പം തൊണ്ടയടപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക തൊണ്ടയൊക്കെ അടഞ്ഞുപോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതൊന്ന് ഓപ്പൺ ആയി വരാൻ തന്നെ കുറെ താമസം എടുക്കും തൊണ്ട അടഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് വർത്താനം പറയാൻ പറ്റില്ല നമുക്ക് മര്യാദയ്ക്ക് ഒന്ന് സൗണ്ട് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ തൊണ്ടയടപ്പൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പം നമ്മൾ എന്തൊക്കെ തന്ത്രപരമാണ് നേരിടുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം നമ്മുടെ ഒച്ചയെ സംരക്ഷിക്കണം അപ്പം ഒച്ചയെ സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ എന്താക്കുക നമുക്ക് വല്ല തൊണ്ട വേദനയോ ക്ഷീണം ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം അതിന് കെയറിങ് കൊടുക്കുക അതിനുശേഷം നമ്മൾ തൊണ്ടവേദനയ്ക്കാണെങ്കിൽ ചുക്ക് കാപ്പി ചുടുക ചൂട് വെള്ളം കുടിയ്ക്കുക നല്ലവണ്ണം ആവി പിടിക്കുക ഇതൊക്കെയാണ് നമുക്ക് സ്വന്തം നമുക്ക് നമ്മുടെ സൗണ്ട് വീണ്ടെടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവർത്തികൾ പിന്നെ എന്നിട്ടേ മാക്സിമം സംരക്ഷിക്കുന്ന എങ്ങനെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക തണുത്തകാലത്തേക്ക് നമ്മൾ എന്താ തണുത്തകാലത്ത് ഈ മഴയുടെ കാലത്തൊക്കെ നമ്മൾ തണുതത്ത് തിന്നാണ്ടിരിക്കുക അതേലോ ഫ്രിഡ്ജിൽ വെച്ച് വെള്ളം കുടികാത്തിരിക്കുക ഐസ് ക്രീം പുറത്തു നിന്ന് ഫുഡ് ഒന്നും കഴിക്കാണ്ടിരിക്കുക ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒച്ച സംരഷിക്കാനുള്ള ഒരു വഴിയെന്ന് പറയുന്നത്